ഹലോ സാഗർ ഹോട്ടലല്ലെ ആ ഓക്കേ അവിടെ ഇന്ന് തുറന്നിട്ടുണ്ടോ ബാക്കി എല്ലാ റെസ്റ്റോന്റും ഹോട്ടേൽസും ഒക്കെ ക്ലോസ്ഡ് ആണ് അതാണ് വിളിച്ച് ചോദിച്ചത് അവിടെ തുറന്നിട്ടുണ്ടോ ഉണ്ടല്ലേ അവിടെ എങ്ങനെയാ നമ്മൾക്ക് വീട്ടിൽ കൊണ്ട് തരുമോ ഫുഡ് ഡെലിവറി ഉണ്ടോ ആ ആ ആ ഒന് ഒന് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഓർഡർ വേണമായിരുന്നു കുറച്ച് ഫുഡ് വേണമായിരുന്നു ഉണ്ടല്ലേ നമുക്ക് കൊണ്ട് കൊണ്ടു തരാനുള്ള ഇതുണ്ടോ ആ ആ ഓക്കേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് വേണമായിരുന്നു ഞാൻ ഒരു അഡ്രസ്സ് തന്നാൽ ഞങ്ങൾ നിങ്ങൾ വീട്ടിൽ കൊണ്ട് തരില്ലേ ആ ഓക്കേ ഓക്കേ ഓക്കേ ശരി